ഇന്ഡ്യന് മാധ്യമങ്ങളെ കുറിച്ച് പറയുക ആണെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള മാധ്യമങ്ങളാണ് ഇപ്പം നമ്മളുടെ നമുക്ക് കിട്ടാന് അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് പത്രത്തിലുണ്ട് നമുക്ക് ഇലക്ട്രോണിക് അല്ലെങ്കില് പത്രം എന്ന് പറയാം അതായത് പ്രിന്റെട് ആായിട്ടുള്ള രീതിയിൽ അച്ചടിച്ചു വരുന്ന രീതിയിലുള്ള മാധ്യമങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അത് കൂടാണ്ട് നമുക്ക് ഇലക്ട്രോണിക് മാധ്യമങ്ങളെന്ന് വേണമെങ്കില് പറയാം അതായത് ന്യൂസ് വഴി നമുക്ക് ടെലിവിഷന് വഴി ന്യൂസ് വഴി നമുക്ക് ലഭിക്കുന്നത് റേഡിയോ വഴി നമുക്ക് ലഭിക്കുന്നത് ഇതെല്ലാം നമ്മള് നമ്മുടെ അരികിലേക്ക് നമുക്ക് അറിവ് പകരാന് വേണ്ടി നമ്മുൾ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള മാധ്യമങ്ങളാണ് ഇന്ഡ്യന് മാധ്യമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കില് ആദ്യമായി ഇന്ഡ്യന് മാധ്യമങ്ങള് തുടങ്ങി വച്ചത് അതായത് ആദ്യത്തെ പത്രം ഇറങ്ങിയത് ബംഗാള് ഗസെറ്റ് എന്ന് പറയുന്ന ഒരു പത്രമായിരുന്നു അതിലൂടെ നമ്മള് വാര്ത്തകള് ലോകത്തെമ്പാടും നടക്കുന്ന വാര്ത്തകള് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയി ട്ടും തുടങ്ങി വച്ചതാണ് ഈ മാധ്യമങ്ങളെന്ന് ന്ന് പറയുന്നത് ഈ മാധ്യമങ്ങള് ഒരു പരിധി വരെ നമുക്ക് നല്ല കാര്യങ്ങള് നമ്മളിലേക്ക് എത്തിക്കാന് ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് അതായത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് കൂടുതലും നല്ല വാര്ത്തകളെക്കാളും കൂടുതൽ മോശ വാര്ത്തകളാണ് നമുക്ക് ഈ കുറച്ച് നാളായിട്ട് നമുക്ക് കാണാന് സാധിക്കുന്ന ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കില് നമുക്ക് പീഡനം കൊലപാതകം മോഷണം അതുപോലെ അച്ഛന് അച്ഛന് മക്കളെ തല്ലിക്കൊന്നു അമ്മ മക്കൾക്ക് വിഷം കൊടുത്തു അതുപോലെ തന്നെ പീഡന കേസുകളാണെങ്കിലും ഭയങ്കര കാര്യമായ രീതിയിലാണ് എല്ലാരും തന്നെ എല്ലാ മാധ്യമങ്ങളും തന്നെ വിവരിച്ചു എഴുതുന്നത് ചിലതൊന്നും ഒരു യാഥാര്ത്ഥ്യവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഇവർ ഉള്പ്പെടുത്തി നമ്മൾക്ക് ആണേല് നമ്മുടെ മുന്നിലേക്ക് അതായത് സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് സാധാരണ മനുഷ്യർ ഇതെല്ലാം മനസിലാക്കി ഇതിനും മാത്രം പ്രശ്നങ്ങളുണ്ടോ എന്ന് വരെ ചിന്തിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വലിയ രീതിയിലേക്ക് ആക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പം കേരളത്തിലെ കുറച്ച് പത്രങ്ങൾ അല്ലെങ്കില് മാധ്യമങ്ങൾ എടുക്കുക ആണെങ്കില് പത്രങ്ങളില് തന്നെ നമുക്ക് മലയാള മനോരമ ദീപിക കേരള കൗമുദി മംഗളം അങ്ങനെ കുറച്ച് പത്രങ്ങളാണ് എന്റെ അറിവിലുള്ളത് ഇനി ഇപ്പം ന്യൂസ് ചാനലുകൾ എടുക്കുകയാണെങ്കില് നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ട്വന്റി ഫോറ് മനോരമ മീഡിയാ വണ് ജീവന് ന്യൂസ് അങ്ങനെ കുറച്ച് കുറച്ച് ന്യൂസുകള് നമുക്ക് ഇപ്പം നമുക്ക് കിട്ടാറുള്ളത് നമ്മൾ ഈ ന്യൂസ് ചാനലുകൾ വച്ചാൽ തന്നെ അതിൽ ഇരുപത് നാല് മണിക്കൂറും നമുക്ക് ന്യൂസുകൾ കിട്ടുന്നുണ്ട് പക്ഷെ അതിൽ ഏറ്റവും എടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഴര തൊട്ട് അല്ലെങ്കിൽ എട്ട് മണി തൊട്ടുള്ള ഈ വാര്ത്താ വാര്ത്ത ഈ ചര്ച്ച ചര്ച്ചകൾ നടക്കുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും കൂടുതല് നമുക്ക് കാണാന് സാധിക്കുന്നത് അതിൽ ഒരു കാര്യവും ഇല്ലാത്ത വിഷയമെടുത്തിട്ട് ഒരു കുറച്ച് ആള്ക്കാർ കൂടെ അത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട കുറച്ച് ആള്ക്കാർ ആർക്കും അല്ലെങ്കിൽ എന്തിനേലും പ്രതിനിധീകരിച്ച് നില്ക്കുന്ന ഏതേലും പാട്ടിലെ ആളുകൾ ആയിരിക്കാം അവർ തമ്മിൽ ആവശ്യം ഇല്ലാത്ത കുറേ കാര്യങ്ങള് ചര്ച്ച ചെയ്യുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉപകാരം ഉള്ള കാര്യങ്ങൾ ആയിരിക്കും ചര്ച്ച ചെയ്തു പോവുന്നത് എങ്കിലും ആവിശ്യമില്ലാത്ത കാര്യങ്ങൾ ചര്ച്ച ചെയ്ത് ആളുകളെ പറ്റിക്കുണ്ണ രീതിയാണ് ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം കാണുന്നത് പക്ഷേ ഈ പ്രളയം വന്ന സമയത്ത് അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്ത് നമുക്ക് വേറെ അറിവുകളൊന്നും പുറത്തേക്ക് കിട്ടാൻ ഇല്ലായിരുന്നു ആ സമയങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് കൂടെ അറിവ് കിട്ടിയിരുന്നു അതായത് പ്രളയം വന്ന സമയത്ത് ഈ ഹെല്പ്ലൈന് അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ നമ്പറുകൾ അതൊക്കെ ഈ കാണിക്കുന്നത് വേണ്ടി അത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ മധ്യമങ്ങൾ ആയിരുന്നു അന്നേരം ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അതായത് നമുക്ക് ആ സമയത്ത് ഒരു രക്ഷാപ്രവര്ത്തനത്തിന് ഈ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാന് പറ്റും അതുപോലെ തന്നെ ഈ കോവിഡിന്റെ സമയത്ത് ആണേലും നമുക്ക് എല്ലാം അടച്ചു പൂട്ടി ലോക്ക്ഡൌൺ ആയി കിടക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് ആണെങ്കില് കുറച്ചു കൂടെ ബാക്കിയുള്ള സലങ്ങളിൽ എന്താണ് നടക്കുന്നത് അതായത് ഓരോ കണക്കുകൾ ഓരോ ദിവസത്തെ കണക്കുകൾ എന്തൊക്കെയാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റായാൽ കൂടെയും നമ്മളിലേക്ക് എത്തിക്കാന് വേണ്ടിയിട്ട് ഈ വാര്ത്താമാധ്യമങ്ങൾ അതുപോലെ അക്ഷീണം പ്രവര്ത്തിച്ചിട്ടുണ്ട് അത് ആങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം അതുപോലെ തന്നെ ഈ ഒത്തിരി ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുന്ന വാര്ത്തകൾ ഉണ്ടാവുമല്ലോ അതായത് ഇപ്പോൾ ഓക്കി ചുഴലിക്കാറ്റ് നിപ്പ വൈറസ് കോവിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ജനങ്ങളിലേക്ക് ഭീതി പരത്തുന്നും ഉണ്ട് അതുപോലെ തന്നെ നല്ല നല്ല സന്ദേശങ്ങൾ അതായത് ഇപ്പം കോവിഡിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ നമുക്ക് കൈ കഴുകണം അകലം പാലിക്കണം മാസ്ക് ധരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കേട്ട് തുടങ്ങിയത് നമ്മൾ ഈ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ നിന്ന് അങ്ങനെ വരുന്നത് അല്ലാണ്ട് തന്നെ ആദ്യം കേട്ടു തുടങ്ങിയ നമ്മൾ ഈ വാര്ത്താ മാധ്യമങ്ങൾ വഴി ആയിരുന്നു അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഇവർ കുറേയേറെ കാര്യങ്ങള് നമ്മൾക്ക് ഒരു ജാഗ്രത കൊണ്ടുരാന് വേണ്ടി അല്ലെങ്കില് മുന്കരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സഹായമെന്നുള്ള നിലയിൽ കുറെയൊക്കെ നമ്മൾക്ക് പ്രവര്ത്തിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം